ആ ഞാൻ എൻ്റെ ഈ ഒരു പ്രദേശത്ത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ചികിത്സകളും കാര്യങ്ങളും ഒക്കെ അവിടെ ലഭ്യമാണ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ അസുഖങ്ങളും ഒക്കെ ആയിട്ട് വന്നാ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിളാണ് പക്ഷേ എങ്കില് നമുക്കൊരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ മീൻസ് അത്യാവശ്യം വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയാൽ അത് യൂസ് ആവില്ല കാരണം പ്രൈമറി ഹെൽത്ത് സെൻ്റർ എന്ന് വെച്ചാൽ നമ്മൾ താൽക്കാലികമായി ഒരു രോഗത്തിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയുള്ള സെൻ്ററാണല്ലോ അപ്പോൾ അവിടെ എന്നു വെച്ചാൽ സൗകര്യങ്ങള് കുറവാണ് പക്ഷേ എന്തിരുന്നാലും നമ്മള് ചെല്ലുമ്പം നമുക്ക് അതിൻ്റെതായ ഒരു ആസുഖത്തിന് കുറച്ചൊക്കെ മാറ്റം വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു ഗവൺമെൻ്റ് ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്ത് തന്നെ ടൗണിൽ തന്നെയുണ്ട് അപ്പം അവിടെ ഞങ്ങള് ആദ്യമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പം പൊതുവേ ഏത് ഇതിന് അവിടെ പോയാലും അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ സ്കാനിങ്ങ് ആണേലും എക്സ്റേ ആണേലും എന്ത് തന്നെ അവിടെ ഇല്ലായിരുന്നു ചെല്ലും നമ്മള് ഡോക്ടറെ കാണാൻ അവര് പറയും മെഡിക്കൽ കോളേജിൽ നിന്ന് വേറെ വലിയ വലിയ ഹോസ്പിറ്റലിൽ ഒക്കെ പോകാൻ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് മീൻസ് ഞങ്ങളുടെ എന്ന് അല്ലെങ്കിലും ആർക്കൊക്കെ ആണെങ്കിലും അവിടെ സൗകര്യങ്ങള് വളരെ കുറവായിരുന്നു അപ്പം ഒരുപാട് പേര് ഇപ്പം അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാർക്കും നഴ്സ്മാർക്കും ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്കും ശമ്പളത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് കാരണം പലരും ഇവിടെ നിന്ന് അബ്രോഡിലേക്ക് ഒക്കെ പോകുന്നതിനു മെയിൻ കാരണം സാമ്പത്തികം തന്നെയാണ് വളരെ തുച്ഛമായ സാലറിയെ പല ഹോസ്പിറ്റലുകളും നൽക്കാറുള്ളൂ അതൊരു പേർസണൽ ഒരു കേസിന് ഒരുപാട് പ്രശ്നങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ സൗകര്യങ്ങള് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഹോസ്പിറ്റലില് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തായാലും അവിടെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സെറ്റപ്പിലേക്ക് ആയിട്ടില്ല എന്നാൽ വലിയ വലിയൊരു ആക്സിഡൻ്റ് കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മള് കൂടുതലായിട്ടും വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാറാണ് പതിവ് അപ്പം അടിസ്ഥാന സൗകര്യത്തിൻ്റെയും അവിടത്തെ ഉള്ള നിലവാരത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ചികിത്സ ഒരുപാട് ബാധിക്കുന്നുണ്ട് കാരണം ഒരു പെട്ടെന്നൊരു വയ്യായിക വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെമഡീസ് അതിന് ഒരു ട്രീറ്റ്മെൻ്റ് ഹൈയ്യർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പം അത് മറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പ്രധാന കാരണം അതു തന്നെയാണ്